രാഷ്ട്രീയത്തിലും ഭരണകൂടത്തിലും ക്ഷേമത്തെയും കുറിച്ചുള്ള വാർത്തകളില് നേരത്തെ ഒക്കെ ഒത്തിരി താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ വാർത്തകളിൽ ഒട്ടും പ്രാധാന്യമില്ലാത്തതും സത്യസന്ധത ഇല്ലാത്തതുമാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ എല്ലാം ഓരോരുത്തരുടെ ആവശ്യാനുസരണം വളച്ചുണ്ടാക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയ ചായ്വുകൾക്ക് അനുസരിച്ചാണ് ഓരോ പത്രത്തിലും മീഡിയാസിലും ന്യൂസുകൾ വരുന്നത് അതായത് ദേശാഭിമാനി പത്രത്തില് വരുന്നതിന് നേരേ എതിരാണ് മനോരമ പത്രത്തില് വരുന്നത് അതിൻ്റെ എതിരാണ് ജനയുഗം പത്രത്തില് വരുന്നത് ഓരോ പത്രത്തിലും അവരുടെ രാഷ്ട്രീയ ചായ്വുകൾക്ക് അനുസരിച്ചാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എല്ലാ സത്യസന്ധമായ വാർത്ത ഇപ്പോള് ഒരിടത്തും വരാറില്ല സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നതാണെങ്കിൽ പോലും ഒത്തിരി ഫെയ്ക്ക് ആയിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അതൊന്നും സത്യസന്ധതയില്ലാത്ത ഒരു യുഗമാണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യ മാധ്യമങ്ങളിലും ഈ വാർത്തകളിൽ ഒക്കെ വരുന്നത് നമുക്ക് ഒന്നിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഒന്നും ശരിയായ രീതിയിലല്ല എൻ്റെ ആവശ്യത്തിന് ഏതു വേണോ അതനുസരിച്ച് ഞാൻ വാർത്തകൾ കൊടുക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ കൊടുക്കുന്ന വാർത്ത നാളെ വേറൊരാള് അതിന് എതിരായിട്ട് കൊടുക്കും ഇതൊന്നും സത്യസന്ധമല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കണ്ട് പണ്ടോക്കെ നേരത്തെ മണിക്കൂറുകളോളും രാവിലെ പത്രം വായിച്ച് പത്രത്തിലെ വാർത്തകൾ വായിച്ച് രാഷ്ട്രീയത്തെ കുറിച്ചും സ്പോർട്സിനെ കുറിച്ചുമൊക്കെ വായിച്ച് വളരെയധികം സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോള് അത് വായിക്കുന്നതിനോട് തന്നെ താല്പര്യം ഇല്ലാണ്ട് ആയിരിക്കയാണ് കാരണം ഇതിന്റകത്തെ സത്യസന്ധതയില്ലായ്കയാണ് നമുക്ക് വായിക്കുന്നത് ഒന്നും മനസിലാകുന്നില്ല ഇന്നു പറയുന്നതല്ല നാളെ പറയുന്നത് അതുകൊണ്ടാണ് ഇതൊന്നും വായിക്കാൻ താല്പര്യമില്ലാതെ പോകുന്നത്